ആ പ്രിൻസിപ്പൽ സാറല്ലേ ആ സർ ഇത് ബി കോം സെക്കൻഡ് ഇയറിലെ വന്ദന എന്നൊരു സ്റ്റുഡൻറ് ആണ് ഞാൻ ആ സർ ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ ഫാൻ ഇപ്പോൾ ഒരു ഏഴെട്ട് ദിവസമായി ഇന്നേക്ക് എട്ട് ദിവസമായി വർക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞയാഴ്ച കംപ്ലയിൻറ് ആ അതെയതെ ബി കോം സെക്കൻഡ് ഇയർ ഞങ്ങൾ കംപ്ലയിൻറ് കൊടുത്തതായിരുന്നു പക്ഷേ ഇതുവരെ ഇപ്പോൾ എട്ടാമത്തെ ദിവസമായിട്ടും ഇതുവരെ മാറ്റിത്തന്നിട്ടില്ല വേറെയൊരു ക്ലാസ്സിലേക്കും ഞങ്ങളെ മാറ്റിയിട്ടില്ല അപ്പോൾ ഇനിയും ഡിലേ ആവുമോ സർ ഓ ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഭയങ്കര ചൂട് കാലമായത് കാരണം ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയത് കാരണം ഞങ്ങൾക്കെല്ലാവർക്കും ഇരിക്കാൻ ക്ലാസ്സിലിരിക്കാനൊക്കെ ഉച്ചക്ക് ശേഷമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സാറേ ഓക്കെ ഓക്കെ സർ ഓക്കെ താങ്ക്യൂ